ഞാനൊരു കേക്ക് മേക്കറാണ് എനിക്ക് ഈ ബിസിനസ്സ് രംഗത്തേക്ക് വരാൻ ഇടയായ സാഹചര്യം എന്താന്ന് വെച്ചാൽ മലയാള മനോരമ പത്രത്തിൽ ഒരു ആഡ് കണ്ടു കോട്ടയം ആർ സി റ്റി വെച്ച് ഒരു പത്തു ദിവസത്തെ ഫ്രീ കോഴ്സ് കേക്കിൻ്റെ ഫ്രീ കോഴ്സ് പത്തു ദിവസത്തെ നടക്കുന്നു അവിടേയ്ക്ക് ആവശ്യമുള്ളവർ നാൽപ്പത്തഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള വനിതകൾക്ക് ഇതിനകത്തേക്ക് വരാനാഗ്രഹിക്കുന്നവർ എത്തിച്ചേരണമെന്നു വെച്ച് ഒരു ആഡ് കണ്ടു അങ്ങനെ ആ പത്രം വായനയിലൂടെയാണ് എനിക്ക് എൻ്റെ ബിസിനസ്സ് രംഗത്തേക്ക് മുന്നോട്ട് വരുവാൻ സാധിച്ചത് അന്നപ്പോൾ എന്താ ഡെയ്ലി പത്രം വായിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പരസ്യം കാണാൻ സാധിച്ചു ആ പരസ്യത്തിൽ ആ പരസ്യം കണ്ടതിനുശേഷമാണ് ഞാൻ ഈ ഈ അവിടേക്ക് അപേക്ഷ കൊടുത്തതും ആ അപേക്ഷയിൽ എന്നെ സെലക്ട് ചെയ്തതും ഞാൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നാൽപത്തഞ്ച് വയസ്സ് ആവാറായിരിക്കുന്ന ടൈമായിരുന്നു അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ആ ആ വാർത്ത അപ്പോൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് ആ ആ കറക്റ്റ് എനിക്ക് ആ ടൈം കഴിയുന്നതിൻ്റെ പ്രായത്തിൻ്റെ ടൈം കഴിയുന്നതിനുമുന്നെ എനിക്കവിടെ അപേക്ഷിക്കാൻ അപ്ലൈ ചെയ്യാൻ പറ്റിയത് ആ അപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും ഞാനവിടെ പത്തു ദിവസത്തെ കോഴ്സ് ഫ്രീ കോഴ്സായിരുന്നു അതുപോലെതന്നെ നമുക്ക് ഫുഡ് ലഞ്ച് ടീയ് അങ്ങനത്തെ എല്ലാം നമുക്ക് ഫ്രീ ആയിരുന്നു ആ ആ ഫ്രീ ക്ലാസിൽ ഞാൻ പത്തു ദിവസവും അറ്റൻ്റ് ചെയ്തു വളരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു അത് കാരണം എനിക്കെൻ്റെ ബിസിനസ്സ് ബിസിനസ്സ് വീട്ടിലെ ഒരു പണികളുമില്ലാത വീട്ടിലിരുന്ന എനിക്ക് എനിക്കുതന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇടയായത് ഇങ്ങനെയൊരു വാർത്താ മാധ്യമത്തിൻ്റെ സഹായത്തോടുകൂടി മാത്രമാണ് അല്ലെങ്കിലൊരിക്കലും ഞാൻ ഈ പത്രം വായിക്കില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെയൊരു കോഴ്സിനെപ്പറ്റി അറിയത്തും ഇല്ലായിരുന്നു ഇന്നു ഞാൻ വീട്ടിൽ വെറുതെ അടുക്കളപ്പണിയും ചെയ്തു കുട്ടികളേയും നോക്കി ഇരിക്കുന്നത് അല്ലാതെ ഇന്ന് ഞാൻ ഈ ഒരു രംഗത്തേക്ക് വരിക ഇല്ലായിരുന്നു അങ്ങനെ ഈ രംഗത്തേക്ക് വന്നതിൻ്റെ ബലമായിട്ട് ഞാനിപ്പോൾ കേക്കുകളുണ്ടാക്കി വിൽക്കുന്നുണ്ട് എനിക്ക് എനിക്കൊരു പത്തു പൈസ എൻ്റെ കയ്യിൽ എനിക്ക് എടുക്കാനായിട്ട് പരുവത്തിന് ആ ഒരു സംരംഭത്തെ വളർത്തി എടുക്കുവാൻ എൻ്റെ ഈ പിന്നെ ബിസിനസ്സ് രംഗത്തേക്ക് എന്നെ കൊണ്ടുവന്നതും ഈ പത്ര വാർത്തയാണ് അതുപോലെതന്നെ ഞാൻ പിന്നെ ഇപ്പോൾ ആ എനിക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം കൂടി ഉണ്ട് കാരണം നമ്മൾക്ക് നമ്മളുടെ ഹസ്ബൻ്റിനെ ആശ്രയിക്കാതെ നമ്മുടെ നമ്മുടെ കയ്യിൽ പത്ത് പൈസ വരുമാനം ഉണ്ടാക്കി എടുക്കാമെന്നുള്ളത് അത് ഏതൊരു പെണ്ണിൻ്റേയും അത് ഏതൊരു വീട്ടമ്മയുടേയും പിന്നെ ഏറ്റവും വലിയ ആഗ്രഹവുമാണ് അല്ലെങ്കിൽ നമ്മളവരുടെ അവരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ നമ്മൾ എന്തോ ഒരു മാനക്കേടു പോലെയാണ് കാരണം അത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മളവിടെ വേണ്ടയെന്നു വയ്ക്കും

അങ്ങനെ അങ്ങനെ എനിക്ക് എൻ്റെ ഇപ്പോഴെനിക്ക് എൻ്റെ ആവശ്യങ്ങളൊന്നും എനിക്ക് വേണ്ടായെന്നു വയ്ക്കേണ്ട വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അത്യാവശ്യത്തിനുള്ള എൻ്റെ കയ്യിൽ പൈസ വരുന്നുണ്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അപ്പന് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഈ ബിസിനസ്സിൽക്കൂടി മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നു അതിനേക്കാളുപരി ഓരോ ആൾക്കാരും അവർ എൻ്റെ കേക്ക് കഴിച്ചതിനുശേഷം ആ ഓരോ പിറ്റേ ദിവസം വരുന്ന അല്ലെങ്കിൽ അന്നുതന്നെ വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ

ആ അതെ സമയം നമ്മൾ ഇപ്പോൾ ഒരു ജോലി ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ പണി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊക്കെ കടക്കും നമുക്ക് മനസ്സിനൊരു സുഖവും ഉണ്ടാവത്തില്ല എന്നും കഞ്ഞിയും കറിയും വയ്ക്കുന്നു കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നു വീണ്ടുമിതുതന്നെ അങ്ങനെയൊക്കെ ഒരു ആണ് നമ്മുടെ ജീവിതം പൊയ്ക്കോണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം കിട്ടിയത് സത്യം പറഞ്ഞാൽ ഞാനന്ന് എനിക്ക് പത്രം വായനയിലൂടെ ഈ ഒരു ബിസിനസ്സ് രംഗത്തേക്ക് വരാനുള്ള അഡ്വെർടൈസ്മെൻ്റ് കണ്ടതുകൊണ്ടാണ് ആ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിന്നും ആ പിന്നെ എനിക്ക് ബിസിനസ്സ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കുന്നത് അതിനാൽ ഞാൻ ആ എനിക്ക് തന്ന ആ കോഴ്സ് തന്ന ആ സ്ഥാപനത്തെ എൻ്റെ ജീവിത കാലത്തിലൊരിക്കലും ഞാൻ വിസ്മരിക്കില്ല